ഇന്ത്യയിലിപ്പം വടക്കേ അറ്റം മുതൽ തെക്കേയറ്റം വരെ എടുക്കുവാണെങ്കിൽ നമുക്ക് കേദാർനാഥ് ഉണ്ട് ബദ്രിനാഥ് ഉണ്ട് വൈഷ്ണോ ദേവിയുണ്ട് ഹരിദ്വാറുണ്ട് ഋഷികേശുണ്ട് പിന്നെ ഗുരു ഗ്രന്ഥ് സാഹിബ് ഡൽഹിയിൽ ഉണ്ട് പിന്നെ ഇപ്പം നമ്മൾ തെക്കേ അറ്റത്തോട്ട് വരുവാണെങ്കിൽ നമ്മൾ കേരളം എടുക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശബരിമല എന്ന് പറയുന്നത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതും വളരെയധികം സാംസ്കാരികപരമായും തീർത്ഥാടനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഇനി ഇവിടുത്തെ ഒരു പാരമ്പര്യത്തെ പറ്റി പറയുവാണെങ്കിൽ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പുരുഷന്മാരാണ് പുരുഷന്മാർ നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം എടുത്ത് മാലയിട്ട് വ്രതം നോറ്റ് വ്രത ശുദ്ധിയോടെയാണ് മല ചവിട്ടുന്നത് പമ്പയിൽ നിന്ന് തുടങ്ങി സന്നിധാനം വരെ ചെല്ലുന്നത് ഒരു വളരെ കഠിനമായ കല്ലും മുള്ളും നിറഞ്ഞൊരു യാത്രയാണ് പക്ഷേ അതെല്ലാം താണ്ടി അയ്യപ്പൻ്റെ മുന്നിൽ എത്തുമ്പോഴത്തേനും അവർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതിയും ഒരു സന്തോഷവും ഒക്കെയാണ് ആ ഭക്തിയുടെ അങ്ങേയറ്റം എന്നു പറയുന്നത് പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാന ആഘോഷം എന്ന് പറയുമ്പോഴത്തേനും മകരവിളക്കും അതേപോലെ തന്നെ മണ്ഡലമാസം വൃശ്ചികം ഒന്നു തൊട്ട് ധനുമാസം പതിനൊന്ന് വരെ ഉള്ള മണ്ഡല മാസം വളരെ വലിയൊരു ആഘോഷമാണ് അതേപോലെ മകരവിളക്കിന് പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പൻ അണിഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആഭരണങ്ങൾ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് ശബരിമല വരെ പോയി അവിടെ അയ്യപ്പന് അത് ചാർത്തി മകരവിളക്ക് മകരജ്യോതി തെളിയുന്ന സമയത്ത് അയ്യപ്പന് അത് ചാർത്തി ദീപാരാധന നടത്തുന്നത് അവിടുത്തെ വലിയൊരു ആഘോഷമാണ്